ഒരു പത്തിരുപത് പേർക്കുള്ളതാണ് പത്തിരുപത് പേരുണ്ട് ആ ചിലപ്പം അതിൽ കൂടാൻ ചാൻസ് ഉണ്ട് ആ ഇമ്മാരിയോ ആ ഫുഡ് ഒക്കെ വേണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇവിടെ വയനാട്ടിൽ കറങ്ങാൻ വരുന്നത് അവന്മാർ കോഴിക്കോട് ഉള്ളവർ പുറത്തുള്ളവരാണ് അപ്പോൾ പുറത്തുനിന്ന് ഇവിടേക്ക് കറങ്ങാൻ വേണ്ടി വരുന്നതായിരുന്നു അപ്പോൾ ഫുഡും കാര്യങ്ങളും എല്ലാം വേണം അത്യാവശ്യം നല്ലൊരു സ്ഥലം ആവണം താനും ആ ആ

ആ അത്യാവശ്യം നല്ല രീതിക്ക് കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ പറ്റിയ അങ്ങനെ ആ അത്യാവശ്യം ചിലർ കുറച്ച് പേർ അപ്പം അതിന് പറ്റിയ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലമാണ് വേണ്ടത് ആ അതിനുള്ള സ്ഥലമാണ് വേണ്ടത് അവന്മാർക്ക് ആ അത് കുഴപ്പം ഒന്നും ഇല്ല എവിടെ വയനാട്ടിൽ എവിടെയായാലും മതി അവന്മാർക്ക് അത്യാവശ്യം എല്ലായിടത്തും പോയി കറങ്ങാനുള്ളതാണ് ആ അപ്പം

പൈസയൊന്നും കുഴപ്പം ഇല്ല അവന്മാർ അത്യാവശ്യം പൈസക്ക് ടീംസാണ് വരുന്നവന്മാർ എല്ലാവരും ആ ആ അത് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്തായാലും അപ്പോൾ കമ്മീഷനൊക്കെ ചെറിയ രീതിക്ക് ആ അത് നമുക്ക് സെറ്റാക്കാം ആ അതൊക്കെ സെറ്റാക്കി തരാം അത്യാവശ്യം നല്ല റൂമാണ് അവന്മാർക്ക് വേണ്ടത്

ആ അങ്ങനെത്തെയാണ് വേണ്ടത് അവന്മാർ അടിച്ച്പൊളിക്കാൻ അവന്മാർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും വരും ആ മൂന്നുനാല് ദിവസത്തിനുള്ളിൽ എന്തായാലും വരും ആ ഞാൻ അവന്മാരോട് പറയാം സ്ഥലവും കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവന്മാർ പറയാനായിരുന്നു പറഞ്ഞത് ഫണ്ട് ഒക്കെ അപ്പോൾ അത് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് വിളിച്ച് പറയാം എന്തായാലും അപ്പം അതിന് പറ്റിയ ഒരു നല്ല ഒരു സ്ഥലമാണ് വേണ്ടത് അവന്മാർക്ക് അത്യാവശ്യം അടിച്ചുപൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ അത്യാവശ്യം നല്ലൊരു ആ ആ എന്നാൽ അവന്മാരെ വിളിച്ച് ഞാൻ പറയാം ഏകദേശം ഫണ്ട് ഒക്കെ എത്രയാകും

ആ ആ ഓക്കേ ആ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തേ നമുക്കൊരു കമ്മീഷൻ ചിലപ്പം കിട്ടും ആ അപ്പം അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ആ ഞാൻ അവന്മാരെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയാം ആ ഓക്കേ ആ അഡ്വാൻസ് ഇട്ടുതരാൻ പറയാം ആ ആ ആ ആ നാളത്തേക്ക് ആ ഓക്കേ എന്നാൽ ആ